നമ്മുടെ പ്രദേശത്ത് നിരവധി ആരോഗ്യ സേവന കേന്ദ്രങ്ങളുണ്ട് ചെറിയ ചെറിയ ഹെൽത്ത് സെൻ്ററായാലും ചെറിയ ചെറിയ കുത്തിവെപ്പ് കേന്ദ്രങ്ങളായിട്ടായാലും കുറച്ച് ആരോഗ്യ സേവനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രമേഹം രക്തസമ്മർദ്ദം പോലുള്ള അസുഖങ്ങൾ പരിശോധിക്കാനാണ് കൂടുതലും നമ്മുടെ പ്രദേശത്തെ ഹെൽത്ത് സെൻ്ററുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ചെറിയ മുറിവുകൾ കുട്ടികൾക്കുള്ള കുത്തി വയ്പ്പുകൾ അതൊക്കെയാണ് നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഗ്രാമ പ്രദേശത്തെ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് വൃദ്ധ ജനങ്ങൾക്ക് പ്രമേഹം പോലുള്ള രോഗങ്ങൾ അവയ്ക്ക് വേണ്ട ഇൻസുലിൻ അവയ്ക്ക് വേണ്ടുന്ന മരുന്നുകൾ അവയൊക്കെ നമുക്ക് പ്രാഥമിക കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇതിൽ കൂടുതൽ വളരെ നമുക്ക് കൂടുതൽ അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഐ സി യു പോലെയുള്ള സൗകര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും പട്ടണത്തിൽ തന്നെ പോകേണ്ടതായി വരുന്നുണ്ട് പട്ടണത്തിലെ ഹോസ്പിറ്റലുകളിൽ നിരവധി സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് വെൻ്റിലേറ്ററ് പോലെയുള്ള സൗകര്യങ്ങൾക്കൊക്കെ നമ്മൾ പട്ടണത്തിലെ ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് പ്രധാനമായും എന്നാൽ താരതമ്യേന ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ പനി ജലദോഷം അങ്ങനെയൊക്കെ ഉള്ള ചില രോഗങ്ങൾ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക കേന്ദ്രത്തിൽ തന്നെയാണ് പ്രാഥമിക കേന്ദ്രത്തിൽ നമുക്ക് ഡോക്ടർമാർ ഒരു ഡോക്ടറ് അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റേഴ്സ് ആ ചെറിയ നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഒരു ഡിസ്പെൻസറി ഒക്കെ പോലെ നമുക്ക് പ്രാഥമിക കേന്ദ്രത്തിൽ ഉണ്ട് കുട്ടികൾക്കുള്ള കുത്തിവെപ്പുകൾ എല്ലാം തന്നെ നമുക്ക് സൗജന്യമായി നമുക്ക് നമ്മുടെ സർക്കാർ നൽകുന്നുണ്ട് പ്രാഥമിക കേന്ദ്രങ്ങൾ വഴി അതിനാൽ വളരെ സാധാരണക്കാർക്ക് വളരെയധികം ആശ്രയ ആശ്വാസകരമാണ് ഈ പറയുന്ന പോലെ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ളത് വളരെയധികം ആശ്വാസകരമാണ് വൃദ്ധ ജനങ്ങൾക്കായാലും കിടപ്പു രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെയധികം സൗകര്യങ്ങൾ നമുക്ക് ഹെൽത്ത് സെൻ്ററുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് വാട്ടർ ബെഡ് പോലെയുള്ള സൗകര്യങ്ങൾ വീട്ടിൽ വീട് വീടാന്തരം വന്ന് ആശാവർക്കർമാർ വന്ന് നോക്കുന്നതായാലും ആശാവർക്കർമാർ വീട് വീടാന്തരം വന്ന് പ്രായമായ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്കു വേണ്ടി ചെയ്യുന്നുണ്ട് ഷുഗറ് നോക്കുന്നുണ്ട് പ്രഷറ് നോക്കുന്നുണ്ട് കൊളസ്ട്രോള് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലം വീട് വീടു വീടാന്തരം ആശാവർക്കർമാർ വന്ന് അവരുടെ സേവനങ്ങൾ നൽകി പോരുന്നുണ്ട് അതുമുഖാന്തരം നാട്ടിൻ പ്രദേശത്തെ വളരെയധികം ആൾക്കാർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നല്ല ഒരു സേവനമാണ് ഈ പ്രാഥമിക കേന്ദ്രങ്ങൾ വഴി നൽകപ്പെടുന്നത് വളരെ വലിയ അസുഖങ്ങൾ പോലെ വലിയ ആക്സിഡൻ്റ് വലിയ അറ്റാക്കുകൾ പിന്നെ സർജറി വേണ്ടുന്ന രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഹൃദയപരമായിട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കരൾ രോഗങ്ങൾ എന്നീ രോഗങ്ങൾ അതൊക്കെ നമുക്ക് പട്ടണത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ പ്രാഥമിക കേന്ദ്രത്തിലവ അതിനിതൊക്കെ ഒരു സൗകര്യങ്ങളില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാഥമിക കേന്ദ്ര നമ്മൾ പട്ടണത്തിലേക്ക് വലിയ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത് ആ അത് സാധാരണക്കാർക്ക് വളരെയധികം അപ്രാപ്യമായ കാര്യമാണ് പട്ടണങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ പോയി രോഗ ചികിത്സ നേടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് വളരെ രോഗ വളരെയധികം പൈസച്ചിലവ് കൂടുതലുള്ളതാണ് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഗവണ്മെൻ്റിൻ്റെ മെഡിക്കൽ കോളേജ് പോലെയുള്ള സൗകര്യങ്ങളും ഗവണ്മെൻ്റ് ഒരുക്കിയിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ഒക്കെ ആണ് എങ്കിൽ തന്നെയും നമുക്ക് പട്ടണങ്ങളിലുള്ള ഹോസ്പിറ്റലുകളെയൊക്കെ നമുക്ക് ഇങ്ങനെ ഈ വിധത്തിലുള്ള രോഗങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് കുട്ടികൾക്ക് പോലെയുള്ള പ്രധിരോധ കുത്തിവെപ്പ് പോലെയുള്ള രോഗങ്ങൾക്കും നമ്മൾ തീർച്ചയായും നാട്ടിലെ പ്രാഥമിക രോഗങ്ങൾ പ്രാഥമിക കേന്ദ്രങ്ങളിലൂടെ കുത്തിവയ്പ്പുകളൊക്കെ നമുക്ക് കുത്തിവയ്പ്പുകൾ ഒക്കെ സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസകരമാണ് അതുമാത്രം ആശാവർക്കർ പോലെയുള്ളെ ആളുകൾ നമ്മുടെ വീട് വീടാന്തരം വന്ന് നമുക്ക് കിടപ്പു രോഗികളെ നോക്കുകയും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുകയോ ചെയ്യുന്നത് വളരെയധികം നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് തോന്നാറുണ്ട് വക വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്